കേരളത്തിൽ ഇപ്പോൾ മുസ്ലിംസും ഹിന്ദുവും കൂടിയാണ് കൂടുതൽ തർക്കം നടക്കുന്നത് ഹിന്ദുമതം കേരളത്തിൻ്റെ പരമ്പര പാ പയയ പഴയ ഒരു മതവിശ്വാസമാണ് അതു കൂടുതൽ ആളുകൾ ഹിന്ദുക്കളാണ് അപ്പം മുസ്ലിംസായിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് യോജിച്ചു പോകാനും മുസ്ലിംസാണെങ്കിൽ കുറച്ച് അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതു മുൻപോട്ടു കൊണ്ടുപോകാനുള്ളൊരു പ്രാപ്പ് അപ്പം അത് എല്ലാം നിർത്തലാക്കിയിട്ട് മുസ്ലീമും ഹിന്ദുവെല്ലാവരും ഹിന്ദുമതമെന്നു പറഞ്ഞാൽ അതിൻ്റേതായ ഇപ്പം കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരത്തും കേരളമൊട്ടാകെ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ക്ഷേത്രങ്ങളെയെക്കെ മാറ്റിയിട്ട് നമുക്കൊരു പള്ളികൾ മാത്രം ഉണ്ടാക്കി അങ്ങനെ ജീവിക്കാനും സാധിക്കില്ല അപ്പം പള്ളികളും വേണം പക്ഷേ ഹിന്ദുക്കളുടെ പരമ്പരാഗത രീതിയിലുള്ള ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിൽ നില നിർത്തി തന്നെ അതു കൊണ്ടും പോകണം അപ്പം ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഹിന്ദു മുസ്ലിം വൈരാഗ്യങ്ങളിങ്ങനെ വന്നു കൊണ്ടിരിക്കും അതു ജനങ്ങൾ തന്നെ വിചാരിക്കണം നമ്മളൊറ്റക്കെട്ടാണ് നമ്മളൊരു രാജ്യക്കാരാണ് ഒന്നിച്ചു പോകേണ്ടവരാണ് അങ്ങനെ വിചാരിച്ച് മതത്തിൽ നിന്നും മാറി മനുഷ്യനായി മാറി മനുഷ്യനിലേക്കെത്താൻ നോക്കണതാണ് ഏറ്റവും നല്ലത് അപ്പം മതമെല്ലാം ഒരു മതമായി മാറുകയും ആ രീതിയിൽ നമുക്കു മുമ്പോട്ടു പോകാനും പറ്റും